ഹലോ ആ എന്ത് എടീ

ആ ഓക്കെ

അവർ എങ്ങനത്തെയാണ് നീ ഉദ്ദേശിക്കുന്നത് നല്ല വ്യൂവും കാര്യങ്ങൾ ഒക്കെ ഉള്ള ആ ആ ഓക്കെ മനസ്സിലായി കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഥ എഴുതുന്നവരൊക്കെ ആയിരിക്കും അല്ലേ ആ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് ഇപ്പം നമ്മടെ നിയർ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് അപ്പം നമ്മള അടുത്ത നിയർ തന്നെ കുറേ സ്ഥലങ്ങൾ ഉണ്ട് ഓക്കെ ഓക്കെ മനസ്സിലായി ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് സ്ഥലം എൻ്റെ അറിവിൽ ഉണ്ട് ഞാൻ ജസ്റ്റ് നിനക്ക് വേണമെങ്കിൽ ഫോട്ടോസ് അയച്ചുതരാം എന്നത്തേക്കാണ് അവർ വരുന്നത് വൺ വീക്ക് അല്ലേ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നീ ഫ്രീ ആണെങ്കിൽ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് പോയി നോക്കാം നീ വേണമെങ്കിൽ ഇപ്പം ഒന്ന് വാട്ട്സ്ആപ്പിൽ കുറച്ച് ഫോട്ടോസ് അയച്ചുതരാം നീ അത് നോക്കി നോക്ക് എന്നിട്ട് എതെങ്കിലും നമുക്ക് ഇപ്പം ബീച്ചിന്റെ സൈഡ് തന്നെ കോഴിക്കോട് ബീച്ചിന്റ സൈഡ് തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് പിന്നെ കുറച്ച് മാറിയിട്ടാണ് ഉള്ളത് അതൊക്കെ നമുക്ക് പോയി നോക്കാം കുറച്ച് ഹിൽ ടോപ്പ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒക്കെ ആയിട്ടും ഉണ്ട് അപ്പോൾ നിനക്ക് നോക്കിയിട്ട് ഏതെങ്കിലും ഇൻറ്ററസ്റ്റ് ഉള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസ് അയച്ച് തന്നിട്ട് അതിൽ നീ ചൂസ് ചെയ്യ് എന്നിട്ട് വൺ വീക്ക് ടൈം ഉണ്ടല്ലോ ആ നമുക്ക് എന്തായാലും വൺ വീക്ക് ടൈം ഉണ്ടല്ലോ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നോക്കാം നിനക്ക് ഇൻറ്ററസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിയ സ്ഥലമാണെങ്കിൽ നമുക്ക് അത് എന്തായാലും എടുക്കാം പിന്നെ എനിക്ക് പരിചയം ഉള്ളവരാണ് എല്ലായിടത്തും ഉള്ളത് ആ ആ ഓക്കെ എനിക്ക് പരിചയം ഉള്ളവരാണ് എല്ലായിടത്തും ഉള്ളത് അപ്പം നമുക്ക് സംസാരിച്ച് റേറ്റും കാര്യങ്ങൾ ഒക്കെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാം ആ എന്തായാലും ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം അത് നീ ചെക്ക് ചെയ്തിട്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പറഞ്ഞാൽ മതി നമുക്ക് അത് പെട്ടെന്നുതന്നെ വിളിച്ച് എന്തെങ്കിലും ചെയ്യാം അവർ എന്നാണ് എത്തുന്നതെന്ന് കറക്റ്റ് ഡേറ്റ് ഒന്ന് നോക്കി വയ്ക്ക് കേട്ടോ ആ ആ എടീ ഓക്കെ എന്നാൽ